എനിക്ക് ആക്ച്വലീ ഇങ്ങനെയുള്ള കവിതകളും അതുപോലെ തന്നെ കവിത എഴുതുന്ന കൃത്തുകളൊക്കെ എനിക്ക് ഭയങ്കരിഷ്ടമാണ് പിന്നവരെ ഇഷ്ടപ്പെടാനുള്ള കാര്യമെന്നു വെച്ചാൽ അവർക്ക് ഭയങ്കര ഭാവനയാണ് ഒരൂ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പൂവ് കണ്ടാൽപ്പോലും അവർ അതിനെ വർണ്ണിച്ച് നമ്മളെ വേറൊരു ലോകത്തേക്കാക്കുന്നതായിട്ട് എനിക്ക് ഫീലാക്കുന്നുണ്ട് ഇപ്പം ഒരു പ്രപഞ്ചത്തിൻ്റെ ആ എന്താണ് ഏതൊരു കോണെടുത്താലും എല്ലാം കവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ്ങ് അല്ലെങ്കിൽ ഒരു വർണ്ണന അവർക്കുണ്ടാകും അതുകൊണ്ടെനിക്ക് പേഴ്സണലി ഭയങ്കരിഷ്ടമാണ് കവികളെ ഇഷ്ടമാണ് അതുപോലെ തന്നെ കവിതകളും ഇഷ്ടമാണ് പിന്നെ ഇനി കഥകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോവലൊക്കെയാണെങ്കിലും എനിക്കിപ്പം ഞാൻ ലാസ്റ്റ് വായിച്ചതൊരിക്കലാണ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിതകളും കഥകളൊക്കെ